ഞാനെൻ്റെ ബൈക്ക് എൻ്റെ കുട്ടിയെ നോക്കുന്നത് മാതിരിയാണ് നോക്കുക ഇത് മിക്ക ദിവസവുമെന്ന് പറഞ്ഞത് മാതിരി അത് കഴുകി വൃത്തിയാക്കാറുണ്ട് അതിന് ഇൻഷൊറൻസ്സ് ടാക്സ്സ് എല്ലാം കറക്റ്റ് സമയത്തടയ്ക്കും ആർക്കും അങ്ങനെ ഓടിക്കാൻ പുറത്ത് കൊടുക്കാറില്ല അങ്ങനെ എന്റെ ഒരു സ്വന്തം സൊന്തം കുട്ടിയെ നോക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ നോക്കാറ് ദീക ദീർഘദൂരയാത്രകളിൽ ടൂ വീലേഴ്സ്സത്ര സേഫ് അല്ല എങ്കിലും നമുക്കൊരു അഡ്വഞ്ചറസ് രീതീ എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റും പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ നിർത്തണം വല്ലാതെ എഞ്ചിൻ ചൂടാവുകയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം നിർത്തി ഇട്ടും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇടയ്ക്കൊന്ന് കഴുകുക അങ്ങനെയൊക്കെ ചെയിതിട്ട് വേണം നമ്മള് പോകാൻ പിന്നെ ഹെൽമെറ്റൊക്കെ നമ്മള് ധരിയ്ക്കണ്ടത് അത്യാവശ്യമാണ് അത് കുറെ നേരം വെച്ചാൽ നമ്മുടെ തലയ്ക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അത് കാരണം ദീർഘയൂദ ദീർഘദൂരയാത്രകളിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിർത്തി ഇട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തൊക്കെ പോകുകയാണ് നല്ലത് പിന്നെ ഓവർ സ്പീഡ് പാടില്ല അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒര് കാര്യം പിന്നെ അതിൻ്റെ ബ്രേക്ക് ക്ലെച്ച് ഇതൊക്കെ നമ്മള് നോക്കണ്ടതാണ് അതൊക്കെ സമയാസമയത്ത് അതിൻ്റെ മെയിന്റനൻസ് വർക്കുകളൊക്കെ നമ്മള് ചെയ്യേണ്ടതാണ് സർവീസൊക്കെ ചെയ്യേണ്ടതാണ് അങ്ങനെ അതിനെ ബൈക്കിനെ അങ്ങോട്ട് നമ്മള് വണ്ടി എങ്ങനെ നോക്കുന്നോ അത് മാതിരിയാണ് വണ്ടി നമുക്ക് തിരിച്ചും നമ്മളോടും പെരുമാറുക എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മള് അതിനേ കൊണ്ടു നടക്കാൻ